ഞാൻ വാങ്ങിയ സ്മാർട്ട് വാച്ചെന്നു പറഞ്ഞാൽ നോയ്സ് എന്ന കമ്പനിയുടെയായിരുന്നു അതിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ശ അവർ പ്രൈസ് കൊടുത്തിരിക്കുന്ന അതിൽ വില കൊടുത്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഒരു കൂപ്പൺ കോഡോണ്ടായിരുന്നു ഒരു പ്രമോ കോഡ് പോലെ കിട്ടി ആ പ്രമോ കോഡ് കിട്ടി അതുപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഇരുപത് ശതമാനം കിഴിവു തന്നു ഇരുപത് ശതമാനം കിഴിവാണ് ഡിസ്കൗണ്ടാണെനിക്ക് കാണിച്ചിരുന്നത് ഏകദേശം എനിക്കൊരു ഒരു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയൊക്കെ എനിക്കടച്ചാൽ മതി അത്രയും കുറവ് സംഭവിച്ചു അപ്പം ആ ഒരു പ്രമോ കാർഡ് വന്ന കൊണ്ടാണെനിക്കത്രയും മാറ്റം വന്നത് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ കൊടുക്കേണ്ടതായിട്ടെനിക്കു വന്നേനെ അപ്പം ഞാൻ വളരെ ആഗ്രഹിച്ച് ഞാൻ കാർട്ടിൽ കൊണ്ട് ഇട്ടിരുന്നതായിരുന്നു ആമസോണിലെൻ്റെ ഈ സ്മാർട്ട് വാച്ചെന്നു പറഞ്ഞാൽ നോയ്സ്സിൻ്റെ അതു കിട്ടിയതു കൊണ്ട് എനിക്കത്രയും കിഴിവു കിട്ടിയതു കൊണ്ട് എനിക്ക് മൊത്തം തുക അടക്കാണ്ട് എനിക്കാ കുറച്ചു രൂപ ഉപയോഗിച്ചു കൊണ്ട് എനിക്കതു ചെയ്യാൻ പറ്റി അങ്ങനെ ഒരിതുണ്ട്